അപ്പോള് എനിക്ക് ഇഷ്ടപ്പെട്ട ബൈക്കുകളിലൊന്നാണ് യമഹയുടെ എം ടി ഫിഫ്റ്റീന് അപ്പോള് അത് ഇഷ്ടപ്പെടാനുള്ള മെയിന് കാരണം എന്ന് പറഞ്ഞാല് പ്രധാന കാരണമെന്ന് പറഞ്ഞാല് അതിന്റെ മൈലേജ് തന്നെയാണ് അത് ഒരു ലിറ്ററില് നാല്പത്തിയഞ്ച് കിലോ മീറ്റര് വരെ നമുക്ക് ഓടിക്കാം അപ്പോള് അത് അത്യാവശ്യം നമുക്ക് കാശ് കുറച്ച് ഓടിക്കാം പെട്രോളിനൊക്കെ വില കൂടിയ സ്ഥിതിക്ക് കാശ് കുറച്ച് ഓടിക്കാം പിന്നെ യമഹയുടെ തന്നെ വണ്ടിയായതുകൊണ്ട് നമുക്കിത്തിരി കുറേക്കാലം നന്നായി വിശ്വസിച്ചിട്ട് കൊണ്ടുനടക്കാനും പറ്റും പിന്നെ കാണാനും അത്യാവശ്യം കൊള്ളാം പിന്നെ രണ്ടാമതൊരു ബൈക്ക് പറയുവാണെങ്കില് ഹോണ്ടയുടെ ഹൈനസ്സ് എന്ന് പറയാം അതും കാണാന് നല്ല ഭംഗിയുള്ളതും അത്യാവശ്യം നല്ല സവിശേഷതകളുള്ള വണ്ടികളുമാണ് അപ്പോള് അതല്ലാതൊരു വണ്ടി പറയുവാണെങ്കില് റോയല് എന്ഫീല്ഡിന്റെ ഇൻറ്റർസെപ്റ്ററായിരിക്കും അത് കാണാനും അടിപൊളിയാണ് വണ്ടിയുടെ സൗണ്ടും നല്ല കേള്ക്കാന് നല്ല ഗാംഭീര്യമുള്ള ഒച്ചയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോള് ഈ ബൈക്കുകളൊക്കെയാണ് എനിക്ക് ഇഷ്ടമുള്ള ബൈക്കുകളില് ചിലതായിട്ട് ഒന്ന് ഇപ്പോള് ഞാന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബൈക്ക് വന്നിട്ട് ടി വി എസിന്റെ ആര് ടി ആര് വൺ സിക്സ്ടി എന്ന് പറയും അപ്പോള് അത് ഞാനിപ്പോള് മൂന്ന് മൂന്നര കൊല്ലമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോള് അത് ഞാന് വാങ്ങുന്ന സമയത്ത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയായിരുന്നു അപ്പോള് കൊടുത്ത കാശിനുള്ള സവിശേഷതകള് വണ്ടിയിലുണ്ട് ഞാനുപയോഗിച്ചത്രത്തോളം കാലം എനിക്ക് ഒരു പ്രശ്നവും ഇതുവരെ വന്നിട്ടില്ല പിന്നെ ടി വി എസിന്റെ സര്വീസും അത്യാവശ്യം നല്ല രീതിക്ക് പോകുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല പിന്നെ എന്റെ സ്വപ്ന ബൈക്ക് ഏതാണെന്ന് ചോദിച്ചാല് ഞാന് റോയല് എന്ഫീല്ഡിന്റെ മുമ്പ് പറഞ്ഞപോലെ റോയല് എന്ഫീല്ഡിന്റെ ഇൻറ്റർസെപ്റ്റര്ന്നെന്ന്യേ പറയുള്ളൂ അതിന് മൈലേജ് കുറവാണെങ്കിലും ഒച്ചയും കാണാനും കൊള്ളാം ഒച്ച നല്ല ഗാംഭീര്യമുള്ള ഒച്ചയും കാണാന് നല്ല സ്റ്റൈലന് ലുക്കും ഉണ്ട് അപ്പോള് സ്റ്റൈലിഷ് ലുക്കും ആയതുകൊണ്ട് എനിക്കാ ബൈക്ക് ഒന്ന് വാങ്ങിയാല് കൊള്ളാമെന്നുണ്ട് എപ്പോഴേലും ഭാവിയിലെപ്പോഴേലും പിന്നെ ബൈക്ക് യാത്രകള്ക്ക് സൗകര്യപ്രദമായ ബൈക്കില് പറയാന് പറ്റിയ ഒരെണ്ണം ബജാജിന്റെ ഡോമിനോര് ഫോര് ഹൺഡ്രഡാണ് അപ്പോള് അത് ഞാനെന്റെ ഒരു കൂട്ടുകാരന്റെ ഓടിച്ച് നോക്കിയിട്ടുണ്ട് നല്ല ദീര്ഘ ദൂര യാത്രയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോള് ഞങ്ങള്ക്ക് നടുവേദനയോ ആ തോള് വേദനയോ അങ്ങനെ ഒരു അസൗകര്യങ്ങളും ഉണ്ടായിരിന്നില്ല വളരെ അധികം ദൂരം ഒരു കുഴപ്പവുമില്ലാണ്ട് ഓടിച്ചുപോവാന് എനിക്ക് തോന്നി അപ്പോള് ഞാന് വേറെ ആരെയെങ്കിലും ഇതേപോലെ ദീര്ഘദൂര യാത്രയ്ക്ക് ഒരു ബൈക്ക് ചോദിക്കുവാണേല് ഞാന് ഡോമിനോര് ഫോര് ഹൺഡ്രഡ് തന്നെ പറയും അത്യാവശ്യം കാണാനും ലുക്കുള്ള ബൈക്കും അത്യാവശ്യം മൈലേജും മൈലേജ് ഇത്തിരി കുറവാണെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടൊന്നും ശാരീരികമായി ബുദ്ധിമുട്ടൊന്നും ബൈക്കില് നിന്നും ഒണ്ടാവില്ല